ഹലോ ഇത് കെ എസ് ഇ ബി അല്ലേ ആ എൻ്റെ മീറ്റർ കറണ്ട് ബില്ല് വന്നായിരുന്നു അപ്പം എനിക്ക് കുറച്ച് എമൗണ്ട് കൂടതലാണ് കാണിച്ചേക്കുന്നത് ഞങ്ങൾ അത്രയും യൂണിറ്റ് വൈദ്യുതി ഒന്നും ഉപോഗിച്ചിട്ടില്ല അപ്പം അതിനെക്കുറിച്ച് അറിയാനായിട്ട് ആയിരുന്നു ഞങ്ങൾ ഉപയോഗിക്കാത്ത ബില്ലാണ് വന്നേക്കുന്നത് ഞങ്ങൾക്ക് സാധാരണ ഒരു രണ്ട് ആയിരം ഒക്കെയാണ് ബില്ല് വരുന്നത് എങ്കിൽ ഇപ്രാവശ്യം വന്നേക്കണത് പതിനായിരം രൂപയാണ് അപ്പം അതിനെക്കുറിച്ച് അറിയാനായിട്ടും ആണ് ഞാൻ വിളിച്ചത് ഞങ്ങൾ അത്ര കറണ്ടൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് ഞങ്ങൾക്ക് അറിയണം